നമുക്കറിയാം കൃഷിയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ കൃഷിയിലാശ്രയിക്കുന്നുണ്ട് എല്ലാ കുറച്ച് ആൾക്കാരുടെ വരുമാനം തന്നെ കൃഷിയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹച്യത്തിൽ കർഷകർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നുണ്ട് കുറേ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കാരണം അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ പണം ഈ ലോണെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ കുറേ നൂലാമാലകളുണ്ട് അപ്പം ഈ കർഷകർക്കൊന്നും അത് ചിലപ്പം അത് കിട്ടിക്ക കിട്ടണം എന്നില്ല അത് നേരെ കിട്ടണം എന്നില്ല ആണ്ട് ലോൺ പ്രൊവൈഡ്യ്യുമ്പൊ ലോൺ കൊടുക്കുമ്പോൾ അത്പോലെ തന്നെ അവർക്ക് വേണ്ട ആ മെഷീൻസ്സ് കൃഷിക്കാവശ്യമായ മെഷീൻസ്സെല്ലാം കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ കാലാവസ്ഥ മാറ്റമെന്ന് പറയുന്ന കർഷകർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് പറയുന്നത് ഏത് നേരത്തും ചൂടാണ് ചൂട് കാലാവസ്ഥയാണ് ഇപ്പം അധികം ഉള്ളത് അതുകൊണ്ട് തന്നെ ആക്ക് കർഷർക്കിപ്പം കൃഷി ഇപ്പം കൃഷി ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥ അല്ല കാരണം കൃഷി ചെയ്യുമ്പം അവർക്ക് അറിയില്ലല്ലൊ ഇതാണ് വരാൻ പോവുന്ന പ്രശ്നം അല്ലെങ്കിൽ ഈ ആഗോള താപനമെല്ലാം ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടു തന്നെ അതെല്ലാം അവരെ കൃഷിയിലേക്ക് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഓരോ വിളയെന്നും കീടങ്ങളുടെ ശല്ല്യം അത് ബാധിക്കുന്നുണ്ട് പിന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കർഷകരെ ബാധിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താലെ അവർക്ക് ഒരു കൃഷിയിന്നുള്ളൊരു സാധനം മുന്നോട്ടു കൊണ്ടുപോകാൻ പറ്റു കാരണം അവരുടെ ജീവിത വരുമാനം തന്നെ കൃഷിയാണ് കൃഷി ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റൂല്ല അപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ സ്ഥാനത്ത് നിന്ന് അല്ലേൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അവർ ലോൺ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കൂടാതെ അവർക്ക് വേണ്ട മെഷീൻസ്സും സീഡ്സ്സും അതിന് പണ്ടേ വളങ്ങളെല്ലാം നല്ല രീതിയിൽ കൊടൂത്ത് കഴിഞ്ഞാൽ ഈ കൃഷീന്നുള്ളൊരു കാര്യം നമ്മുടെ രാജ്യത്ത് പ്രോത്സാ ഭയങ്കരമായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ കീടനാശിനി അടിച്ച പച്ചക്കറികളും എല്ലാം തിന്നിട്ട് വേണം ആക്കണമെങ്കിൽ പിന്നെ പറഞ്ഞല്ലോ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കൃഷിക്കാരെ അഫക്റ്റ് ചെയ്യുന്നത് അത് അതേ എഫ്ഫക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറമേ തന്നെ ഈ സഹായവും ധനസഹായവും പിന്നെ കർഷകർക്കുള്ള പരിശീലനവും അതെല്ലാം ഭയങ്കരമായിട്ട് എഫ്ഫക്റ്റ് ചെയ്യും കാരണം ഒരു പരിശീലനം ഇല്ലാതെ അവർ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുണ്ട് അവർ പഴയ രീതിയിൽ തന്നെ ഫോള്ളോ ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ രീതീയിൽ അവർക്ക് സമയം ലാഭിക്കാൻ പറ്റുന്ന രീതീയിലവർക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ എഫ് പോസിറ്റിവ് ആയിട്ട് എഫ്ഫക്റ്റ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പരിശീലനം കൊടുത്ത് കഴിഞ്ഞാൽ അവർ കൃഷിയിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും അവർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കൃഷീനെക്കുറിച്ച് പറയാനുള്ളതും